തലവേദന മാറ്റുവാൻ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ നമുക്ക് അറിയാം തലവേദന തന്നെ കൊടിഞ്ഞി പോലെയും ഒക്കെ വരുന്ന സമയത്ത് ചിലർ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് നെറ്റിക്ക് തൂക്കാറുണ്ട് അല്ലേ നമ്മുടെ ദേവതാരുവിൻ്റെ ഇല തേക്കാറുണ്ട് പിന്നെ നമ്മളുടെ മുറ്റത്ത് ചെടി വളരുന്ന ചെടിയാണ് വിക്സെന്ന് പറയുന്ന ചെടി അതിൻ്റെ ഇങ്ങനെ ഇല തു ഇങ്ങനെ നെറ്റിയിൽ തടവാറുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മളെ പനികൂർക്കയും തുളസിയിലയുടെയുമൊക്കെ അത് നീര് നമുക്ക് തൂക്കാറുണ്ട് അതിൻ്റെ തലവേദന എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും പിന്നെ അല്ലെങ്കിൽ വെള്ളം തൊട്ട് നെറ്റിക്കിടാം അല്ലെങ്കിൽ ചിലർ പഴയ ആളുകൾ ചെയ്യാറുണ്ടായിരുന്നു കടുക് അരച്ച് നെറ്റിക്കിടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചില നാട്ടു കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മടെ മുറ്റത്തു നിൽക്കുന്ന പൂങ്കുറുനിലിൻ്റെ ഇല അരച്ച് നെറ്റിക്ക് തൂക്കാറുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ആവി പിടിച്ച് തലവേദനയ്ക്ക് തുളസി പനിക്കൂർക്ക കാട്ടു തുളസി ഇങ്ങനെയുള്ളവയൊക്കെ ആവി പിടിച്ച് ആവി പിടിക്കുമ്പോൾ കുറേ അസ്വസ്ഥകൾ മാറും പിന്നെ നല്ല പച്ച വെള്ളത്തിൽ മുഖം കഴുകുമ്പഴ് അല്ലെങ്കിൽ പച്ച വെള്ളത്തിൽ നെറ്റി രണ്ടു സൈഡും തടവി അതുമല്ലെങ്കിൽ നമ്മുടെ തള്ള വിരലിൻ്റെ തള്ള വിരലിൻ്റെ ഇത് കൊണ്ട് നന്നായിട്ട് മസ്സാജ് ചെയ്യുമ്പഴ് തലവേദന മാറാൻ അല്ലെങ്കിലൊന്ന് ഉറങ്ങിയാൽ തലവേദന മാറുന്നത് അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ ആളുകൾ ഇതിനൊക്കെ ചെയ്യുന്ന പോം വഴികളുണ്ട് ഏറ്റവും ഇപ്പം ഉപകാരപ്രദമായിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് വിക്സ് വിക്സിൻ്റെ ഇല നമുക്ക് കിട്ടാറുണ്ട് മിക്ക വീടുകളിലും അത് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ആ ചെടിയുടെ ഇല ഒത്തിരി നല്ലതാണ് എല്ലാത്തിൻ്റെയും ഒരു നല്ല ഔഷധ സംഹാരിയാണ് പനികൂർക്ക ആവിക്കും കൊള്ളാം തലവേദനയ്ക്ക് അതിൻ്റെ നീര് തൂക്കുമ്പോൾ ഒത്തിരി നല്ലതാണ് പിന്നെ ചുക്ക് കാപ്പി തലവേദനയ്ക്ക് ഒരു നല്ല ചുക്ക് ചുക്കും കുരുമുളകും ത്രിഫല ഇങ്ങനെയുള്ളവയെല്ലാം കൂടെ ഇട്ട് നല്ലൊരു കാപ്പി വച്ച് കുടിക്കുമ്പോൾ തലവേദന മാറി കിട്ടുന്നതാണ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആളുകൾക്ക് ഒത്തിരി പ്രയോജനപ്രദമാണ് നെ ഏറ്റവും നല്ലത് നമ്മള് കുറച്ചു റസ്റ്റ് എടുക്കുന്ന ആണെന്ന് പലരും പറയും ഏറ്റവും കൂടുതല് റസ്റ്റ് എടുത്തഴിയുമ്പൊ പകുതിയും ആശ്വാസം കിട്ടും ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആളുകൾക്ക് അത് മാറാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ചുക്കും കുരുമുളകും ജീരകവും ന്നേ ത്രിഫല ഇവയെല്ലാം കൂടെ ഇട്ട് കാപ്പിപൊടിയൊക്കെ ഇട്ട് നല്ല ചക്കര കരിപ്പെട്ടി ഇട്ട് കാപ്പി വച്ച് കുടിച്ചു കഴിയുമ്പം ഒരു നല്ല ഒറ്റമൂലിയാണ് തലവേദന മാറും പിന്നെ ചെയ്യുന്ന മറ്റൊന്നാണ് വെളുത്തുള്ളി തലവേദന ഇല്ലെങ്കിൽ അത് പൊള്ളലിന് സാധ്യമാകും അതല്ലെങ്കിൽ ലേശം ചതച്ച് നമ്മുടെ നെറ്റിയിൽ ഒന്ന് തൂക്കാം അല്ലെ പുൽതൈലം ഒത്തിരി നല്ലതാണ് പുൽതൈലത്തിനെ

അപ്പം പ്രചാരത്തിലെ ഇന്ന് നാട്ടു ഗ്രാമങ്ങളിൽ കാണുന്ന നമ്മുടെ മുറ്റങ്ങളിൽ വളരുന്ന ചെടികളിൽ നിന്ന് തന്നെ ഔഷധമൂല്യമുള്ള ചെടികൾ ഒത്തിരിയുണ്ട് തുളസി പനികൂർഖ കാട്ടു തുളസി അല്ലെങ്കിൽ വിക്സ് അതുമലെങ്കിൽ പിന്നെ ഈ മുക്കുറ്റിയുടെ ഇല അതല്ലേ പിന്നെ പിന്നെ എന്താണ് കൊടിയില കൊടിയിലയുടെ തണ്ട് ഇതെല്ലാം നമ്മൾ തലവേദന മാറാനായിട്ട് പലരും ഉപയോഗിക്കാറുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ ഉപകാരപ്രദമാണ്